എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ സംഗീതത്തോടുള്ള ഇമ്പവും അതിലേക്കുള്ള എൻ്റെ താത്പര്യത്തി താൽപര്യം തന്നെയാണ് എട്ടുവർഷമായി സംഗീതം പഠിക്കുന്നു കർണാടക സംഗീതം ഞാൻ അ അഭ്യസിക്കുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് ജന്മനാൽ കിട്ടിയിട്ടുള്ള എൻ്റെ സംഗീത രുചി അതുതന്നെയാണ് എനിക്ക് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് പിന്നെ അതുമാത്രമല്ല അതുകൂടാതെ തന്നെ എൻ്റെ മറ്റുപല ശേഷികളായിട്ടുള്ള എൻ്റെ ചിത്രം വരക്കാനുള്ള കഴിവുകളും അതോടു അതോടൊപ്പം തന്നെ നൃത്തം ചെയ്യാനുള്ള കഴിവുകളും ഇതൊക്കെ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളും ആണ് അതുമാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ എന്നെ കൂടുതൽ ആകർഷിക്കുന്ന അല്ല അല്ലെങ്കിൽ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എഴുതാനുള്ള പ്രവർത്തനങ്ങളും അതുകൂടാതെ തന്നെ കൂടുതൽ പ്രശ്നപരിഹാരങ്ങളുമാണ് എന്നെ കൂടുതൽ സഹായിക്കുന്നതും അല്ലെങ്കിൽ എന്നെ കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങി അതിലേക്ക് ഉൾപ്പെടാനും അത് അത് എന്നെ സന്തോഷിപ്പിക്കുന്നും ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഓരോ സാമൂഹ്യ സേവനങ്ങളും സാമൂഹ്യ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ സമയ സമയത്ത് നമ്മുടെ ഓരോ നാഷണൽ സർവീസ് സ്കീം എന്നുതുടങ്ങിയിട്ടുള്ള ഓരോ പ്രവർത്തനത്തിലും ഞാൻ പങ്കെടുത്തിട്ടും അതിൽ അത് അതുമാത്രമല്ല അതിലെ ഓരോ പ്രവർത്തനങ്ങൾ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കാറുണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് സഹായം കൊടുത്ത് അവർക്ക് അവരെ അവർക്ക് സന്തോഷം കിട്ടുമ്പോൾ അത് നമ്മളെ കൂടുതൽ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുകയും നമുക്ക് സംതൃപ്തി നൽകുകയും ചെയ്യുന്നു പിന്നെ മുതിർന്നവരെ അല്ലെങ്കിൽ നമ്മുടെ വൃദ്ധ വൃദ്ധരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കരുടെ അല്ലെങ്കിൽ മു മുത്തശ്ശന്മാരുടെ മുത്തശ്ശികളുടെ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കും അവരെ അവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് എന്നെ കൂടുതൽ സ സന്തോഷകരവും എനിക്ക് ഒരു സംതൃപ്തിയും എൻ്റെ ജീവിതത്തിൽ നൽകുന്നത് അതുകൂടാതെ തന്നെ ഇപ്പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളും പുതിയൊരു ദിവസത്തിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്നെ അത് പൂർണ്ണമായും അതിനെ എന്നിലേക്ക് അല്ലെങ്കിൽ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും മുന്നോട്ടുള്ള ജീവിതത്തെ എന്നെ കൂടുതൽ വഹിക്കാനും അത് ഉൾപ്പെടുത്തുന്നു